ഈ മണ്ണിലുള്ള നമ്മളിപ്പം അടിച്ച് വാരുന്ന മുറ്റമൊക്കെ അടിച്ച് വാരി കൂട്ടുമല്ലോ പ്ലാവില മാവില പിന്നെ കുറേ ഇലകളുണ്ടാകും ചീമ കൊന്ന അങ്ങനെ ഒത്തിരി ഒത്തിരി ഇലകൾ മഹാഗണി അതിൻ്റെയൊക്കെ ഇലകൾ പിന്നെ പെറുക്കി മുമ്പിലുള്ള മുറ്റത്തുണ്ടാകും അപ്പോൾ ഞാൻ നമ്മുടെ മുറ്റം മണ്ണിട്ട മുറ്റമാണ് പിന്നെ ഇൻ്റർ ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അടിച്ച് വാരിയിട്ട് എന്തു ചെയ്യും ഒരു സ്ഥലത്ത് കൊണ്ടു പോയി കൂട്ടും പക്ഷെ ഞങ്ങൾ കത്തിച്ചു കളയാറില്ല കേട്ടോ എന്നിട്ട് അത് കൂട്ടി ഒരു മഴയൊക്കെ പെയ്ത് വെച്ചോ ഒരു വർഷം കൂട്ടുമ്പോൾ ഒത്തിരി ഉണ്ടാകും അങ്ങനെ കൂടി കൂടി ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ അടിച്ച് ഞങ്ങൾ മുറ്റത്തെ ഒരു ഭാഗത്ത് ഒരു സൈഡിലും വേറൊരു സൈഡിലുമായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് കൂട്ടുന്നത് ഒറ്റ സൈഡിലോട്ടു കൂട്ടുന്നില്ല കാരണം ബുദ്ധിമുട്ടാണ് അടിച്ചത്രയും മുറ്റമൊത്തിരിയുണ്ട് അപ്പം അടിച്ചു കൂട്ടിയിട്ട് ഒരു നല്ല മഴ ഇപ്പം ഇടക്കിടക്ക് മഴയുണ്ടല്ലോ അപ്പം ഈ മഴ പെയ്യുമ്പോൾ അതൊന്ന് അടിയും അങ്ങനെ പൊന്തിനിൽക്കുന്നത് ഒന്ന് കുമിഞ്ഞത് ഒന്നടിഞ്ഞ് കുറച്ച് കുറയും എന്നിട്ട് ഒന്നുംകൂടി കുറച്ച് കൂടി മഴ പെയ്ത് കുറച്ച് കാലം കഴിയുമ്പം അവിടെ അത് മണ്ണാകും ആ ചീഞ്ഞ എല്ലാം ചീഞ്ഞ മണ്ണാകും നല്ല കറുത്ത മണ്ണായിരിക്കും അപ്പോൾ നല്ല വളക്കൂറുള്ള ചാണകപ്പൊടി ഇടണ്ട ആവശ്യമൊന്നുമില്ല നല്ല വളക്കൂറായിരിക്കും അതിൽ അപ്പം ഞാനെന്തു ചെയ്യും ഞങ്ങൾ പിന്നെ അത് ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബേഗൊക്കെയുണ്ടാകും ഗ്രോ ബേഗിലൊക്കെ നിറച്ചിട്ട് പച്ചക്കറി നടാനും അല്ലെങ്കിൽ നമ്മുടെ പൂച്ചെടി നടാനും റോസൊക്കെ നടാൻ വേണ്ടി ആ മണ്ണാണ് ഉപയോഗിക്കുന്നത് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും വേഗം പിന്നെ നല്ല രീതിയിൽ നമ്മൾ ചാണകത്തിൻ്റെ ഒരു ഒരു ഇത് വളത്തിൻ്റെ ഒരു ഉപയോഗം ആ ഒരു ഇത് എന്താ പറയുക ആ ഒരു ഇത് നമുക്കാ എന്താ പറയുക നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ മണ്ണ്